സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് മരുന്നുകൾ ലഭിക്കാറുണ്ട് ഫ്രീയായിട്ട് തന്നെയാണ് ലഭിക്കാറ് ചില മരുന്നുകൾ മാത്രം നമുക്ക് വെളിയിൽന്ന് പോയി മേടിച്ചാൽ മതിയായിരിക്കും അതും തുച്ഛമായ വിലയുടെയായിരിക്കും ഞങ്ങടെ വീട്ടിൽ അച്ഛന് അറ്റാക്കിനുള്ള ഗുളിക മേടിക്കുന്നതിന് ആയിരം രൂപയങ്ങാണ്ടാണ് ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേനൊക്കെ കാണത്തുള്ളൂ അത് ജെൻ ഔഷധിന്ന് എന്ന് പറയുമ്പം സർക്കാരിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ പകുതി വിലയ്ക്കാണ് മരുന്നുകൾ കൊടുക്കുന്നതും എല്ലാം മേടിക്കുന്നതും ഇങ്ങനെയുള്ള അറ്റാക്കുള്ളവർക്ക് ഇത്ര ശതമാനം കുറച്ചാണ് പൈസ കുറച്ചാണ് മരുന്ന് കൊടുക്കുന്നത് അങ്ങനെയുള്ള സേവനങ്ങളിൽ നിന്ന് സർക്കാർ നല്ല രീതിയിലാണ് ചെയ്യുന്നത് വരുമാനത്തിൻ്റെ വലിയ അധികമൊന്നും പോകുന്നില്ല എന്നാലും അത്യാവശ്യം മരുന്നുകൾക്കായിട്ടും ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് പല രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ സർക്കാർ ആശുപത്രിയിലോട്ടാണ് പോകുന്നത് അങ്ങനെ വരുമ്പോഴ്ത്തേനും പൊതുവേ സർക്കാർ ഡോക്ടർമാർ നമ്മൾക്ക് ചീട്ടുകൾക്ക് പത്തു രൂപയാണ് മേടിക്കാറുളളൂ അതുകഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള എല്ലാ മരുന്നുകളും തരുന്നുണ്ട് ഇഞ്ചെക്ഷന് എടുക്കണേൽ ഇഞ്ചെക്ഷന് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീയാണ് ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നതും എല്ലാവരും പരിഗണിക്കുന്നതുമെല്ലാം ഓരോ അവിടെ സമത്വമുണ്ട് ഒരാൾ കയറി കഴിഞ്ഞാണ് ഒരാൾ കയറുന്നത് പെണ്ണ് കയറി കഴിഞ്ഞാൽ ഒരാണ് കയറുന്നു അങ്ങനെ ഉള്ള എല്ലാ സമത്വം ഉണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ വേർത്തിരിവും കാര്യങ്ങളൊന്നും ഇല്ല മരുന്നിൻ്റെ കാര്യത്തിനാണെങ്കിലും അങ്ങനെയാണ് എല്ലാവർക്കും അവിടുളള മരുന്നുകൾ തരാറുണ്ട് പരമാവധി ഫ്രീയായിട്ടന്നെ എല്ലാ മരുന്നുകളും തരാൻ ശ്രമിക്കും ഒന്നോ രണ്ടോ മരുന്നുകളല്ലേൽ ഒരു മരുന്നോ ചില ടൈമി എല്ലാ മരുന്നുകളും അവിടെന്നു തന്നെ ഫ്രീയായിട്ട് ലഭിക്കാറാണ് സാധ്യത